പാലക്കാട് ജില്ലയില് പണ്ടു മുതലേ തന്നെ പ്രചാരത്തിലുള്ള ഒരു കായിക വിനോദമാണ് കാൽപ്പന്ത് കളി ഈ കാൽപ്പന്തു കളിയിലൂടെ നാനാ ജാതിയിൽപ്പെട്ട ജനങ്ങളും അതുപോലെത്തന്നെ വിവിധ പ്രായത്തിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ചു കൂടി വിനോദത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഒരു ഒത്തിണക്കത്തിന് ഈ കായികവിനോദം വളരെ അധികം പ്രാധാന്യം ഉണ്ട് അതുപോലെത്തന്നെ ശരീരഘടനയുടെ വളർച്ചയ്ക്കും കായികപരമായിട്ടുള്ള വളർച്ചയ്ക്കും ഈ കാൽപ്പന്തു കളി വളരെ അധികം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടു തന്നെയാണ് കേരളത്തിലെ കായികമേളയില് പാലക്കാടിന് എന്നും മുന്നിൽ നിന്ന് നയിക്കാൻ ഉള്ള ഒരു പ്രചോദനമായിട്ട് ഇതു കണ്ടുവരുന്നത്